ഹലോ ഡോക്ടർ അല്ലേ എനിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു

ഇല്ല വേറെ എവിടെയും കാണിച്ചിട്ടൊന്നും ഇല്ല ഇന്നലെ ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞിരുന്നു ആ അതെ അതെ അപ്പം അതിൻ്റെ ചെറിയ ബുദ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് അപ്പം തലവേദന ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഈ ആ ഇന്നലെ ജസ്റ്റ് ഒന്ന് കഴിച്ചായിരുന്നു ഒരു പത്തിരിയും ചിക്കൻ ചില്ലിയും കഴിച്ചായിരുന്നു ആ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ആ ഇന്ന് തൊട്ട് ഇന്ന് രാവിലെ തൊട്ടാണ് പനിയും തലവേദനയും ജലദോഷം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത് പാരസെറ്റമോൾ രണ്ടെണ്ണം ഉണ്ട്

ആ ഓക്കെ ഓക്കെ ആ

ഹോസ്പിറ്റൽ വരെ വരണോ യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഓക്കെ ഓക്കെ ആ അത് പറ്റും അപ്പം ഈ പനി വരാനുള്ള കാരണം ഇതുകൊണ്ടാണോ ഈ ഭക്ഷണത്തിൻ്റെ തന്നെ ആയിരിക്കുവോ

ആ ആ ആ ആ ഓക്കെ ഓക്കെ ഹാ അല്ലാണ്ട് വേറെ ഇപ്പം എങ്ങനെ വേറെ ചെറുതായിട്ട് ഇങ്ങനെ മേല് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു

ആ വാക്സിൻ ഒക്കെ എടുത്തായിരുന്നു കൊറോണ ഒന്നുമില്ല ഇപ്പം പിന്നെ അങ്ങനെ കൊറോണേൻ്റ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം വാക്സിൻ ഒക്കെ എടുത്തു അന്നുതന്നെ അപ്പം എന്താണ് പറയുക അല്ലാണ്ട് ഇപ്പം പകർച്ചവ്യാധി അങ്ങനെ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ വല്ലതും ആണോ എന്ന് അറിയില്ലല്ലോ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ശരി